നമ്മുടെ വീട്ടിലന്നെ ഏറ്റോം അത്യാവശ്യമായിട്ടും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് മൺപാത്രങ്ങൾ മണ്ണ് വെച്ചിട്ടന്നെ നമ്മൾ പാത്രങ്ങളും അതുപോലെ തന്നെ കുറെ ശില്പങ്ങളക്കെ ഉണ്ടാക്കി എടുക്കാറുണ്ട് പിന്നെ നമ്മൾ എന്താ വീട്ടിലെക്ക് വന്ന് വിൽക്കുന്നവരുണ്ട് അതുപോലെ തന്നെ നമ്മൾ പോയി വാങ്ങാറുണ്ട് വീട്ടിക്ക് വന്ന് വിൽക്കുന്നത് മൺപാത്രങ്ങളും അതുപോലെ തന്നെ വസ്ത്രങ്ങളക്കെ ഉണ്ട് അതക്കെ അവരുടെ ഒരു ജീവിത മാർഗ്ഗമായിട്ടാണ് ഞങ്ങൾക്ക് മൻസ്സിലായിട്ടുള്ളത് പിന്നെ നമ്മൾ കടകൾങ്ങാടീ കൂടക്കെ നടന്ന് പോകുമ്പം നമുക്ക് പലപ്പോളും കാണാമ്പറ്റുന്നൊരു സംഭവമാണ് ഇങ്ങനെ പെയ്ന്റിങ്ങ് ശിൽപ്പങ്ങളക്കെ വിൽക്കുന്ന ആൾക്കാർ നമ്മൾ കുറെ കണ്ടിട്ടുണ്ട് പിന്നെ പെയ്ൻടിങ്ങ് ശിൽപ്പങ്ങളക്കെ നമ്മുടെ വീട്ടിലൊരു അലങ്കാരത്തിനായി വിൽക്കുന്ന ഓരോ വസ്തുക്കളായിട്ടാണ് എനിക്ക് തോന്നീട്ടുള്ളത് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളക്കെ ഇതിൻടൊരു ഭാഗമായിട്ടാണ് പല രീതിയിലും പല തരത്തിലൊക്കെ ഇപ്പം തുണികളിൽ വരുന്ന ഒരു സംഭവങ്ങളാണ് വസ്ത്രങ്ങൾ പിന്നെ എനിക്ക് തോന്നീട്ടുള്ളത് നമ്മൾ നല്ലൊരു ഭാഗത്തിന് കേട് വരുത്തി അതിന് വീണ്ടും ഉണ്ടാക്കി എടുക്കാന്നുള്ളതല്ല നമ്മൾ ഒഴിവാക്കുന്ന കടലാസ്സ് അങ്ങനത്തെ സംഭവങ്ങളക്കെ ഉപയോഗിച്ച് പിന്നെ മിച്ചം വരുന്ന തുണികൾ അതൊക്കെ ഉപയോഗിച്ച് നമ്മൾ അതിന് നമ്മുടെ ജീവിതത്തിലേക്ക് ഫലപ്രദമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു ഉണ്ടാക്കിയെടുക്കുന്നതിൽ പറയാൻ എനിക്ക് തോന്നീട്ടുള്ളതതാണ് ഒഴിവാക്കുന്ന സാധനങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക എന്നതാണ് എനിക്ക് ഓരോന്ന് ഉണ്ടാക്കി എടുക്കുന്നതിൽ മനസ്സിലായിട്ടുള്ളത് പിന്നെ ചിരട്ട വെച്ചിട്ട് നമ്മൾ ഒരുപാട് ശില്പങ്ങളക്കെ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം എനിക്കതാണ് പറയാനുള്ളത്